കുറച്ച് കാര്യംകൂടെ ഞാൻ പറയാൻ മറന്ന് പോയി ഞങ്ങൾക്ക് കൃഷിയുണ്ടേ വാഴ കൃഷിയുണ്ട് ഇഞ്ചി കൃഷിയുണ്ട് അത് കൊണ്ട് ഞങ്ങൾക്ക് ചാണകത്തിൽനിന്ന് ചാണകവും കിട്ടും അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഞ്ചിക്കും വാഴക്കും പിന്നെ അതുപോലെത്തന്നെ ചേമ്പ് ചേന ഇതിനെല്ലാം ഇടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും പശുവിനെ വളർത്തുന്നത് ചാണകം ഒക്കെ നമ്മൾ വില കൊടുത്ത് മേടിക്കുമ്പം എത്ര രൂപയാകും അതിൽനിന്ന് നമുക്ക് അതുകൊണ്ട് ഞങ്ങക്ക് അച്ചായന് പന്ത്രണ്ട് മാസം കൃഷിയുള്ളതുകൊണ്ട് അമ്മ ചാണകം വേണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ എപ്പഴും ഒരു മൃഗത്തേ വളർത്തുന്നത് അതുകൊണ്ട് മൃഗമെന്ന് പറയുന്നത് ഞങ്ങള്ഉടെ വീട്ടിലൊരു ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങൾ മൃഗം വിടാതെ ഞങ്ങളുടെ അച്ചായന് ഒരു ഒരു ദിവസം പോലും ഒരു ദിവസം എങ്കിലും മൃഗം ഇല്ലെങ്കിൽ വിഷമമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൃഗത്തെ വളയ്ക്കുന്നെ ചാണക് ചാണകവും കിട്ടുമല്ലോ ചാണകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെക്കാലത്ത് ഞങ്ങൾക്ക് ഇഞ്ചിയും പയർ ചേമ്പ് ചേന ഏത്തവാഴ ഇതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് അതിനെല്ലാം ഇടുകയും ചെയ്യാം അതുകൊണ്ട് ഈ ചാണകം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വളമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണമായിട്ടും നമ്മൾ പശുവിനെ വളർത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പാട്ടയ്ക്ക് ഇത്ര രൂപ വച്ചല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടല്ലോ അതുപോലെത്തന്നെ ആട്ടുംകാട്ടമാണെങ്കിലും ഇഷ്ടംപോലെ ആട്ടുംകാട്ടം ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച് ഞങ്ങളും ഞങ്ങളുടെ കൃഷിക്ക് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഉണ്ട് പാട്ടക്കണക്കിന് അങ്ങനെ ഞങ്ങൾ ഈ മൃഗങ്ങളെ പരിപാലിച്ച് പാലെടുത്ത് അതിൻ്റെ ചാണകം ചാണകം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ചാണകം മറ്റുള്ളവർക്കും വിറ്റും നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട്